ഇപ്പോൾ മലയാള ഭാഷയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാണെങ്കില് മലയാള ഭാഷാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പണ്ട് മുതലേ കേട്ടുവരുന്ന അതായത് ഇപ്പം നമ്മള് ഒരു ജനിച്ച് വീണ കുട്ടീൻ്റെ അടുത്ത് വരെ മോനെ അങ്ങനെ ഇങ്ങനെയാണ് വിളിക്കാ ആ കുട്ടി അമ്മേനൊക്കെയാണ് വിളിക്കണത് അപ്പം അപ്പം നമ്മളെ ജനിച്ച് വീഴുമ്പം തൊട്ട് നമ്മളോട് കേൾക്കുന്ന ആ ഒരു സൗണ്ടാണ് മലയാളം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത് കേട്ടിട്ടാണ് ഓരോ കുട്ടികളും ഓരോ കാര്യങ്ങൾക്കും പറയാൻ വേണ്ടിട്ട് പഠിക്കുന്നത് അല്ലാണ്ട് സ്കളിൽ പോയിട്ടോ അങ്ങനെയൊന്നുമല്ല പഠിക്കുന്നത് അപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടി വിളിക്കുന്നത് അമ്മേ അച്ഛാ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് അപ്പം അവിടം തൊട്ട് നമ്മുടെ മലയാള ഭാഷ നല്ല രീതിയില് സ്വാധീനിച്ച ഒരു ഘട്ടങ്ങളാണ് അവിടന്ന് തൊ തുടക്കമിടുന്നത് എന്നിട്ടാണ് നമ്മുടെ സ്കൂളിലും അല്ലാണ്ട് ഇപ്പോ നമ്മുടെ ഹരീശ്രീ അങ്ങനെയൊക്കെ എഴുതിയിട്ട് സ്കൂളുകളിൽ ഒക്കെ പോയി പഠിക്കുന്നത് പിന്നെയാണ് എഴുതാനൊക്കെ പഠിക്കുന്നത് അപ്പം അതിനു മുന്നേ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളക്കെയാണ് അപ്പം കൂടുതലായിട്ടും മലയാള ഭാഷ നല്ല രീതിയിലുള്ള സംസ്കാരത്തെ തന്നെയാണ് ഉണർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണമെന്ന് വച്ച് കഴിഞ്ഞാല് മലയാളഭാഷ പറയാത്തവര് ഇപ്പം ആരും നമ്മളെ കേരളത്തിൽ തന്നെയില്ല ആ ഒര് ഇപ്പം കുറച്ച് മോശമായ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് കാരണം മലയാളവും ഇംഗ്ലീഷും കൂടികലർത്തിയാണ് സംസാരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആദ്യമൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മലയാളം തന്നെയായിട്ടാണ് പറഞ്ഞോണ്ടിരുന്നത് ഇപ്പം കുറേയധികം മാറിയിട്ടുണ്ട്